പഴയകാല വസ്ത്ക്കളുമായി വസ്തുക്കൾ ശേഖരിച്ച് വെക്കുക എന്ന് കൗതുകവും അത്പോലെ തന്നെ വരും കാലഘട്ടത്തിലേക്ക് പഠനത്തിനും നമ്മളിലേക്കുള്ള തിരിഞ്ഞ് നോട്ടത്തിനും ഏറെ സഹായകരമായ ഒന്നാണല്ലോ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും മഹത്തരവും ചരിത്ര പഠനത്തിന് സഹായിക്കുന്നവയും ആണ് കഴിഞ്ഞകാല തിരിഞ്ഞ് നോട്ടം നമുക്ക് അനിവാര്യവുമാണ് കടന്ന് വന്ന വഴിയിലേക്കുള്ള പുരോഗതിയുടെ പടവുകൾ മനസ്സിലാക്കുന്നതിനും ഉള്ള ഏണിപ്പടികൾ ആണിവ ശേഖരണം എന്നത് മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള കഴിവുകളാണ് വ്യത്യസ്ത വസ്തുക്കളോടും സാധനങ്ങളോടും നമുക്ക് ഉള്ള അഭിരുചികളും താല്പര്യങ്ങളുമാണ് ശേഖരണങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന സ്റ്റാമ്പുകളാവാം നാണയങ്ങളാവാം കല്ല്കളാവാം മണ്ണ്കളാവാം നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളെ മുഴുവനും എന്താണ് നമ്മളുടെ ശേഖരണത്തിൽ ഉൾപ്പെടുത്താം കൂടുതലും പഠനാവശ്യങ്ങൾക്ക് ആയിട്ട് കുട്ടികൾ ഉപയോഗിക്കാറ് നാണയങ്ങളാണ് നാണയങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് പോയൊരു കാലഘട്ടത്തെ മുഴുവൻ സ്മരിക്കുന്ന ഒന്നാണ് കൂടുതലായും രാജാക്കന്മാർ അവരുടെ ഭരണകാലഘട്ടം വർഷം അവിടെ നിലനിന്നിരുന്ന ജീവിതരീതികൾ അവരുടെ ആചാരനുഷ്ഠാനങ്ങൾ ദൈവങ്ങൾ എന്നിവ എല്ലാം മനസ്സിലാക്കുന്നതിന് ഏറെ സഹായകമാണ് അത്പോലെ തന്നെ ആ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ അവയുടെ വിലകൾ എന്നിവ എല്ലാം മനസ്സിലാക്കുന്നതിന് നാണയങ്ങൾ നമ്മെ ഏറെ സഹായകമാകുന്നുണ്ട് പല മൂല്യങ്ങളിലുള്ള നാണയങ്ങളുണ്ട് കഴിഞ്ഞുപോയ ഓട്ട് നാണയങ്ങൾ ചെമ്പ് നാണയങ്ങൾ കാലണകൾ മുതൽ ഇന്ന് പ്രചാരത്തിലുള്ള നാണയത്തുട്ടുകൾ വരെ ഓരോ കാലഘട്ടത്തേയും സ്മരിപ്പിക്കുന്നതാണ് പഴയകാല നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ മുതൽ വെള്ളി നാണയങ്ങൾ വരെ ഓരോ രാജാക്കന്മാരുടെ പ്രൗഢഗംഭീരമായ കാലഘട്ടത്തെ സ്മരിക്കുന്നവയാണല്ലോ ഇന്ന് നാം ഉപയോഗിക്കുന്ന തുട്ടുകൾ മുതൽ പരിചിതമല്ലാത്ത കാലഘട്ടത്തെ മനസ്സിലാക്കുന്നതിന് നാണയങ്ങളും ശേഖരിച്ച് വെക്കുന്ന വഴി നമുക്ക് സഹായമാണ് കുട്ടികൾ കൂടുതലും പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇവയെല്ലാം ശേഖരിച്ച് വെക്കുന്നത് അർത്ഥം അറിയാതെ ശേഖരിച്ച് വെക്കുന്നവരും കൗതകത്തോടെ ശേഖരിച്ച് വെക്കുന്നവരും മൂല്യം മനസ്സിലാക്കി ശേഖരിച്ച് വെക്കുന്നവരും ഉണ്ട് ഇവയെല്ലാം ഓരോരുത്തരുടേതും ഇഷ്ടം രീതിക്കും ശൈലിക്ക് അനുസരിച്ചുമായിരിക്കും ഇവയെല്ലാം ശേഖരണത്തിൽ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നാണയങ്ങൾക്കാണ് പ്രാധാന്യം ഓരോ രൂപയുടെയും നാണയങ്ങൾക്ക് മറ്പുറം നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ നാം എഴുതി നമ്മളുടെ പ്രസിദ്ധരായ രാജാക്കന്മാർ മുതൽ ശക്തരായ രാഷ്ട്രപിതാക്കന്മാർ മുതൽ നവോധാന നായകന്മാർ വരെ അങ്ങനെ തുടങ്ങുന്നു നാണയങ്ങളിലെ പ്രചാരത്തിലുള്ള മുഖങ്ങൾ അവയെല്ലാം ഓരോന്നിൻ്റെ സവിശേഷതകൾക്ക് അനുസരിച്ച് തിരിച്ച് വെച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൗഢഗംഭീരം മനസ്സിലാക്കുന്നതിനും എല്ലാം ഈ നാണയത്തുട്ടുകൾ നമ്മെ ഏറെ സഹായിക്കുന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ മൂല്യങ്ങൾ താരതമ്യം ചെയ്യുവാൻ വളരെ ഏറെ സഹായകമായ ഒന്നാണ് നാണയത്തുട്ടുകൾ അപ്പം അലങ്കരിക്കുകയും ശേഖരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ മനോഹരമായൊരു ദൃശ്യമാണ് അത്പോലെ തന്നെ സ്റ്റാമ്പ് രാജകാലഘട്ടത്തെ വാഴ്ച്ചയുടെ അടയാളങ്ങൾ മുതൽ അഞ്ചലോട്ടക്കാർ മുതൽ അന്നിങ്ങ് വരെയുള്ള കാലഘട്ടത്തിലെ കൈമാറ്റ വിവര കൈമാറ്റ സ്രോതസ്സ്കളുടെ ഒരു അടയാളമായി വർധിക്കുന്നതായിരുന്നു സ്റ്റാമ്പുകൾ പല നാട്ട് രാജ്യങ്ങളുടെയും മുതൽ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും അവരുടേതായ രീതിയിൽ സ്റ്റാമ്പുകളടിച്ച് ഇറക്കും ഇന്ന് മൂല്യം കുറഞ്ഞ് പോയെങ്കിലും പുതിയ തലമുറയ്ക്ക് അത്ര അപ്രാപ്യമല്ലെങ്കിലും സ്റ്റാമ്പുകൾക്കുണ്ടായിരുന്ന വില വളരെ വലുതായിരുന്നു ഓരോ കാലഘട്ടത്തിൻ്റെയും മഹനീയത മനസ്സിലാക്കാൻ സ്റ്റാമ്പുകൾ നമ്മെ സഹായിക്കുന്നു കുട്ടികൾ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായും കോളേജ് വിദ്യാർത്ഥികൾ ഗവേഷണങ്ങളുടെ ഫലമായും സ്റ്റാമ്പുകൾ ശേഖരിക്കുക്കേം പ്രദർശന മേളകളിലും സ്റ്റാളുളിലും അവരുടെ ശേഖരണ വസ്തുക്കൾ പ്രദർശിപ്പിക്കേം ചെയ്യും കല്ലുകൾ വൈവിധ്യമാർന്നവയാണ് കല്ലുകൾ ഓരോ പ്രദേശത്തിനും ദേശത്തിനും അവയുടെ ചലനത്തിനും ഭംഗിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ഓരോന്നിനും വ്യത്യാസം ഉണ്ട് എന്തിന് പോലും ഓരോ ജില്ലയിലും സംസ്ഥാനങ്ങളിലും മലമുകളിൽ നിന്ന് വരുന്ന കല്ലുകൾക്ക് വരെ വ്യത്യസ്ഥതയുണ്ട് വെള്ളാരം കല്ലുകൾ മുതൽ പടുക്കൂട്ടൻ പാറക്കിളങ്ങൾക്കിടക്ക്ന്ന കല്ലുകൾ വരെ വൈവിധ്യമാർന്നവയാണ് അവയുടെ രീതിക്ക് അനുസരിച്ചും അവയുടെ ഷേപ്പ്കൾക്ക് അനുസരിച്ചും നിറങ്ങൾക്ക് അനുസരിച്ചും നാം അവയെ വേർതിരിച്ച് കാണാറുണ്ടല്ലോ പാറപ്പൊടികളായും മണൽത്തരികളായും മാറുന്നത് ഈ കൽക്കൂട്ടങ്ങളാണെന്ന് നാം ഓർക്കണം ഓരോ പ്രദേശത്തേയും മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇവയെല്ലാം നമുക്ക് നോക്കിക്കാണുന്നത് വഴി സാധിക്കും കല്ലുകളും രൂപങ്ങളും ഭംഗികളും അവയെ നാം വാർത്തെടുക്കുന്ന രീതികളും കൽക്കൂമ്പാരങ്ങൾ മുതൽ കുടക്കല്ലുകൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്ക്വോറിയത്തിലിടുന്ന വെള്ളാരം കല്ലുകൾ മുതൽ എല്ലാം വ്യത്യസ്തമയാണല്ലോ ഒരു കെട്ടിടത്തെ പണിതുയർത്തണം എങ്കിൽ പോലും അടിസ്ഥാനശിലയായ കല്ല് എന്നത് വേണമെന്ന കാര്യം നാം വിസ്മരിക്കാതെ പോകരുത് ഒരു രൂപത്തെ അതിൻ്റെ ഭംഗിയിലും ആകാരവടിവിലും ആക്കിയെടുക്കാന്ന് നമ്മളുടെ കഴിവിനാണ് അത്തരത്തിൽ വൈവിധ്യവും ഷെയ്പ്പും രൂപസാദൃശ്യവും വരുത്തിയാണ് നാം അവയെ നമ്മളുടെ ശേഖരണ കൂമ്പാരത്തിലേക്ക് മാറ്റുന്നതാണല്ലോ കൂടുതലും ശേഖരണം നാം വരും തലമുറയിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയെ പഠിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ ഗവേഷണങ്ങൾക്കും പഴയകാലഘട്ടത്തെ മൺമറഞ്ഞ് പോയ ചരിത്രത്തെ സ്മരിക്കുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇവയെല്ലാം ശേഖരിച്ച് വെക്കുന്നത് പുതിയ തലമുറക്ക് കൂടുതലും പഴയ കാല കാലഘട്ടങ്ങളെക്കുറിച്ച് കേട്ടറിവുകൾ മാത്രമുള്ള അവർക്ക് പഴയകാല ശേഖരണങ്ങൾ കണ്ട് മനസ്സിലാക്കുക വഴിയാണ് അവയെ കുറിച്ചെല്ലാം കൂടുതൽ അഗ്രാഹ്യമായ അറിവ് ലഭിക്കാറുള്ളത് അത്തരത്തിൽ കണ്ടറിഞ്ഞ് പ്രാഥമിക തലങ്ങളിലുള്ള അറിവ് നാം ശേഖരിക്കണം എങ്കിൽ ഇത്തരത്തിൽ നാം കളക്ക്ട ചെയ്ത പുരാവസ്തുക്കളിലൂടെ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു അറിവ് കൈവരിക്കാൻ സാധിക്കുകയുള്ളു പഴയ മ്യൂസിയങ്ങളിലും ആർട്ട് ഗ്യാലറികളിലുമാണ് നാം കൂടുതലായും ഇത്തരത്തിലുള്ള ശേഖരണങ്ങളെ കണ്ടെത്തുന്നത് എന്നാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവ്വീകരുടെ കയ്യിലുള്ള വസ്തുക്കൾ മൺമറഞ്ഞ് പോയവ വെറും പാഴ്വസ്തുക്കളായി മാറാതെ നമ്മളുടെ വിദ്യാലയങ്ങളിലും നമ്മളുടെ വീടുകളിലും ശേഖരിച്ച് വെക്കുക ആണെങ്കിൽ നമ്മളുടെ ഇനി വരുന്ന തലമുറക്ക് അതൊരു ഉപകാരവും അതിനെ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും കൂടുതൽ വസ്തുക്കൾ അവർ കണ്ട് കെട്ടുമ്പോൾ അവരുടെ അന്വേഷണത്വര വർദ്ധിക്കുന്നതിനും ആകാംക്ഷയും കൗതുകവും വളർത്തി എടുക്കുന്നതിനും നമുക്ക് അത് ഏറെ സഹായകരമാണ് അങ്ങനെ കുട്ടികളിൽ ഒരു ഗവേഷണശീലം വളർത്തി എടുക്കാൻ ഇത്തരത്തിലുള്ള ശേഖരണങ്ങൾക്ക് കഴിയും എന്നത് വലിയ കാര്യങ്ങളാണ് അറിയാവുന്നതിൽ നിന്നും അറിവില്ലാത്തതിലേക്ക് അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ നിന്നും അറിവുള്ളതിലേക്ക് നാം പരിചിതമായ വസ്തുക്കളിൽ നിന്നും അപരിചിതമായ വസ്തുക്കളിലൂടെ സഞ്ചരിച്ച് അതിനെ പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ അറിവുള്ള മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റണം അത്തരത്തിൽ കുട്ടികൾ ഈ വസ്തുക്കൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഉള്ള പഠനമാണ് ഏറ്റോം കൂടുതൽ അത്യന്താപേക്ഷികമായിട്ടുള്ളത് അതിന് ഇത്തരത്തിലുള്ള ശേഖരണങ്ങൾ നമ്മൾക്ക് സഹായകരമാകട്ടെ ഓരോ വീട്ടിലേയും കുട്ടികളുടെ കയ്യിൽ ഡിക്ഷ്ണറിയെന്നത് പോലെ ഇത്തരത്തിള്ള ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് നാണയത്തുട്ടുകൾ മുതൽ പരിമിതമായ ശേഖരിത്തിൽ നിന്ന് ശേഖരിക്കാവുന്ന സ്റ്റാമ്പുകളും കുഞ്ഞ് കല്ല്കള് ശേഖരണത്തിലൂടെയാകട്ടെ നമ്മളുടെ ശേഖരണത്തിന് ഒരു തുടക്കം കുറിക്കുന്നത് അപ്പോഴാണ് നമ്മളിൽ ഉള്ള ജിജ്ഞാസയും കൗതുകവും ആകാംക്ഷയു എല്ലാം വളരുന്നത് അതൊരു പക്ഷേ നമ്മളെ ഒരു പുതിയ കണ്ട്പിടുത്തത്തിലേക്കോ പഴയ കാലഘട്ടത്തിൻ്റെ അന്വേഷണ ത്വരതയിലേക്കോ വളർത്തുന്നവയായിരിക്കും അത്തരത്തിൽ ഉള്ളൊരു തുടക്കത്തിന് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾക്ക് ഗവേഷണങ്ങൾക്ക് നാം കാരണമായി തീരട്ടെ